അപ്പോൾ നിങ്ങള് ഒരു കാര്യം ഏറ്റുകഴിഞ്ഞാല് അത് കറക്റ്റ് സമയത്തിനു തീർത്തുകൊടുക്കുക എന്നുള്ളത് ഒരു ജോലിൻ്റെ ഒരു കടമയാണ് കാരണം നമ്മളിപ്പോൾ ഇന്ന് തീർത്തു താരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് തീർത്തു കൊടുക്കണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ആ സമയം കൊണ്ടുതന്നെ നമ്മള് അത് കംപ്ളീറ്റ് ചെയ്തു കൊടുക്കുക ഇല്ലെങ്കില് അത് നമുക്ക് പിന്നൊരു ജോലിൻ്റൊരു വിഷയത്തിനാണെങ്കില് ഇപ്പം ഈ ഇപ്പം നമ്മള് ഇന്ന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നൊരു ജോലിക്കും നമുക്ക് എന്താ പറയുക അത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ അവരത് റെക്കമെൻ്റ് ചെയ്യും അങ്ങനെത്തെ അപ്പോൾ അവൻ സമയത്തിനു തീർത്തു കൊടുത്തിട്ടില്ല അങ്ങനെയാണ് പറയുക അപ്പം നമ്മളില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് കൂടുതലായിട്ടും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തു കൊടുക്കുക അപ്പം എനിക്കങ്ങനത്തെ ഒരനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മള് ഒരു വീട് പെയിൻ്റെയ്യാനുണ്ടായിരുന്നു അപ്പം ആ പെയിൻ്റിങ്ങിനു ഒരാഴ്ച ആണവര് സാവ ടൈമ് പറഞ്ഞത് അപ്പോൾ അതിനു ഓരോ കറക്റ്റ് ഞാന് ഒരാഴ്ച ടൈമുകൊണ്ടുതന്നെ ഞാന് എല്ലാം നമ്മള് കുറെ ഇപ്പോൾ തീരു തീരുകയില്ലായിരുന്നു പക്ഷെ എന്നാലും നമ്മളു പരമാവധി എല്ലാം കംപ്ലീറ്റാക്കി ഞാൻ കുറച്ച് കൂടുതൽ പണിക്കാരെ വെച്ച് നല്ല രീതിയില് നമ്മള് പെയിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരു ഇത് ഇതായിരുന്നു ഒരു നല്ലൊരു വലിയൊരു കടമയായിട്ടാണ് എനിക്ക് കണ്ടത്